എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി ആയിരുന്നു പക്ഷെ ഞാൻ ഹ്യൂമനിറ്റീസെടുത്ത് ബീ കോം എടുത്താണ് പക്ഷെ എനിക്ക് അക്കൗണ്ടൻസി പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു അത് പഠിക്കാൻ നല്ല താത്പര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് പഠിക്കുകയും ചെയ്യുമായിരുന്നു അക്കൗണ്ടൻസി എനിക്ക് സ്പെഷ്യൽ ആയി എടുക്കുമായിരുന്നു ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച് വന്നതു കൊണ്ട് പിന്നെ ടീച്ചറായാലും ശരി നമുക്കെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനും നല്ല രീതിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസി ഭയങ്കര ഇഷ്ടമായിരുന്നു എത്ര ടഫാണെങ്കിലും എക്സാം ഹോളിലൊക്കെ അക്കൗണ്ടൻസി നല്ല രീതിക്ക് പാസ്സാക്കുമായിരുന്നു എന്ത് ഡൗട്ട് ചോദിച്ചാലും എപ്പം ചോദിച്ചാലും ടീച്ചർ പറയുമായിരുന്നു അതുപോലെ ഹോം വർക്കും തന്ന് വിടും ചെയ്തില്ലെങ്കിൽ ടീച്ചർ ദേഷ്യപ്പെടും അല്ലാതെ അങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ തെറ്റിച്ചാലോ ആ ഇങ്ങനെ ഇത്രയും ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് നോക്കും ആ അക്കൗണ്ടൻസിയെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇഷ്ടമല്ല ക്യൂ ടി ക്യൂ ട്ടി ഭയങ്കര ഒരു ടഫ്ഫുള്ള ഒരു ഇതായിരുന്നു അതുകൊണ്ട് ക്യൂ ടി എനിക്ക് അത്ര ഇഷ്ടമല്ല ക്യൂ ട്ടിന് ഞാനൊരു പ്രാവശ്യം പൊ തോറ്റിട്ടുണ്ടായിരുന്നു ക്യൂ ടി മാത്സൊക്കെ കലർന്നത് തന്നെ പക്ഷെ ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർക്കൊരു ഇൻട്രസ്റ്റില്ലായ്മ കൊണ്ട് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റില്ലായ്മ വന്നു അത് ഈ അക്കൗണ്ടൻസി എടുക്കുന്ന ടീച്ചറാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും ഈ ടീച്ചർ നേരെ പറഞ്ഞ് തരില്ല ഡൗട്ട് ചോദിച്ചാലും നമ്മളെ ചീത്ത പറയുവൊക്കെ ചെയ്യുമായിരുന്നു ചില ചില സമയത്ത് നന്നായി ചീത്ത പറയും ഡൗട്ട് ചോദിച്ചാൽ നമ്മളെ ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടായിരുന്നു ആ സബ്ജക്റ്റ് അങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല ക്യൂ ടി അതായിട്ട് പൊരുത്തപ്പെടാൻ ഇങ്ങനെ കഴിയാത്തൊരു ഇതാണ് പിന്നെ നല്ല സന്തോഷമോ ആയത് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവരായിട്ട് നല്ല സന്തോഷമോ ഞങ്ങൾ ആറ് പേര് ഒരു ഗ്യാങ്ങായിരുന്നു എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാവരും ചേർന്നായിരുന്നു നിൽക്കുക നമുക്കൊരു പൈസ അത്യാവശ്യം വന്നാലും എല്ലാവരും ചേർന്നെടുക്കാനും അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ഉള്ളത് കൊണ്ട് ആ ഒരുഎന്താണെങ്കിൽ കോളേജ് ലൈഫെ നല്ലൊരിതായിരുന്നു അതുകൊണ്ട് എല്ലാതും നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു എല്ലാവർക്കും എന്ത് ഇത് സന്തോഷം പറയുക അതൊക്കെ പിന്നെ ഓണം സെലിബ്രേഷനതൊക്കെ നല്ലതായിരുന്നു ഞങ്ങളുടെ അതിൽ അപ്പം ഫ്രണ്ട്സായിട്ട് നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും കൂടെ നിൽക്കുന്ന നല്ല ഫ്രണ്ട്സുകൾ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് നല്ലൊരു ഇത് തന്നെയായിരുന്നു സ്കൂൾ കാലഘട്ടമൊക്കെ